ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള കർഷകനാണ് അപ്പം കർഷകനാകൻ തന്നെ കാരണം കൂടുതലും കേരളത്തെ സംബന്ധിച്ചെടുത്തോളം ക്രിസ്ത്യാനികളാണ് കാർഷിക മേഖലയിലേക്ക് കൂടുതലായിട്ട് കടന്നുവന്നിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്നു ചോദിച്ചാൽ നൂറു ശതമാനം എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ലെങ്കിലും ഹൈന്ദവ സമുദായമാണ് അന്ന് യുദ്ധങ്ങളും ഒക്കെ നയിച്ചിരുന്നത് രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നയിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അന്ന് കച്ചവട കാര്യങ്ങൾ ഒക്കെ ആയിട്ട് പോയ്ക്കോണ്ടിരുന്നത് അപ്പോൾ കാർഷിക മേഖലയിലേയ്ക്ക് ക്രിസ്ത്യാനികളാണ് അന്ന് തിരിഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ചുവടുപിടിച്ചായിരിക്കാം എൻ്റെ പാരമ്പര്യമായിട്ട് ഞങ്ങളും കർഷകരായിരുന്നു അങ്ങനെയാണ് ഞാൻ കാർഷിക മേഖലയിലേയ്ക്ക് കടന്നുവരുന്നത് ഇവിടുത്തെ ഇന്നത്തെ കൃഷി എന്നു പറയുന്നത് ഞാൻ വളരെ ചെറുതായിരിക്കുമ്പം കൊടി കാപ്പി തുടങ്ങിയവയായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് കാപ്പി ഒരു തോട്ടവിളയാണ് നമുക്ക് വർഷത്തിലൊരിക്കലെ ആദായം കിട്ടാറുള്ളൂ എന്നാൽ അതിൻ്റെ ഈൽഡ് സ്ഥിരമായിട്ട് നിലനിൽക്കും അതായത് ഒരു കാപ്പി വെച്ചു കഴിഞ്ഞാൽ പത്തൻപത് വർഷത്തേക്കോ അല്ലെങ്കിൽ ഒന്നും അതിനൊരു കേടോ ഉണക്കമോ കാറ്റോ ഒന്നും അതിനെ ബാധിക്കില്ല അതിങ്ങനെ ഈൽഡ് തന്നുകൊണ്ടിരിക്കും പക്ഷേ അതിൻ്റെ വരുമാനത്തിന് ഒരു ചെറിയ എന്നാൽ ഒരു സ്ഥിരതയുണ്ടെങ്കിലും നമുക്ക് വലിയ പ്രോ വലിയ ലാഭകരമല്ല എന്നു വേണമെങ്കിൽ പറയാം നമുക്കതുകൊണ്ട് ഒരേക്കറോ രണ്ടേക്കറോ ഉള്ള ഒരാൾക്ക് ഒരു കുടുംബ ജീവിതം മക്കളെ പഠിപ്പിക്കാനും വിവാഹം കഴിച്ച് അയക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ടുവരും ആ സമയം കൊടി എന്നു പറയുമ്പോൾ ഇച്ചിരികൂടി നമുക്ക് ആദായം കൂടുതൽ കിട്ടും അന്നേരം പണി വളരെ കൂടുതലാണ് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്നു പറയുന്നത് അതിന് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഒരു മുരിക്കും കാലിട്ട് അതിൽ കൊടി വെച്ച് അത് വലുതായി വന്നു കഴിയുമ്പം അദായത്തിലോട്ടത് എത്താനായിട്ട് തന്നെ ഒരു മൂന്നു വർഷം എടുക്കും ഈ മൂന്നു വർഷം നമുക്ക് ആദായം ചെറുതായിട്ട് കിട്ടാൻ തൊടങ്ങും അഞ്ചാമത്തെ വർഷമാണ് നമുക്ക് ആദായത്തിലേക്ക് എത്തുക ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണോ മണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണോ രോഗാണുക്കൾ കയറി ആക്രമിക്കുകയും അഞ്ചു വർഷമാകുമ്പോൾ തന്നെ രോഗങ്ങൾ ആരംഭിക്കുകയും അത് ആറ് ഏഴ് എട്ടു വർഷം കൊണ്ടൊക്കെ വീണ്ടും കൊടി നശിച്ച് പോകുന്ന ഒരു പരുവത്തിലേക്ക് എത്തി അങ്ങനെ ഞങ്ങളുടെ സമുദായത്തിൽ തന്നെ ഉള്ള കാർഷിക മേഖല തകർന്നുപോയി പിന്നീട് കർഷകർ ചെയ്തിരുന്ന മറ്റ് ഒരു കൃഷിയാണ് റബ്ബർ കൃഷി റബ്ബറ് നല്ല ഒരു തോട്ടം വിളയാണ് അത് ഈ പറഞ്ഞതുപോലെ പത്തിരുപത് വർഷത്തേക്ക് അതിൻ്റെ ആദായം നിലനിൽക്കും സ്ഥിരമായ ഒരു വരുമാനം ഉണ്ട് റബറിനൊരു പേരും പെരുമയൊക്കെ ഉണ്ടായിരുന്നു നല്ലവണ്ണം ജീവിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു പോയതോ എന്തോ എന്നറിയില്ല റബ്ബറ് ഉൽപ്പന്നങ്ങൾക്ക് വില വളരെ താഴെ ആവുകയും അതിൻ്റെ വില വളരെ കുറഞ്ഞു പോവുകയും ചെയ്തപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇന്ന് സംജാതമായി നമുക്കറിയാം നാട്ടിൻപുറങ്ങളിലെ കോട്ടയം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പാല ഇവിടെയെല്ലാം റബ്ബർത്തോട്ടങ്ങൾ അതെല്ലാം ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കയ്യിലായിരുന്നു അതിൻ്റെ അറുപതു ശതമാനത്തോളം കർഷകർ ആ കുടുംബങ്ങളെല്ലാം ഇന്ന് കാർഷിക മേഖലയുടെ വിലത്തകർച്ച കാരണം കടബാധ്യതയിലേക്ക് എത്തി അതിൻ്റെ ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കുഴപ്പം എന്നു പറയുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ അതിൻ്റെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്നു പറയുന്നത് നമുക്ക് എന്താ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്നു പറയുന്നത് മക്കൾക്ക് നല്ലവണം ജീവിച്ചുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഒന്നാമതെ ഇവിടെ ജോലിയുടെ കുറവുണ്ട് കാർഷികമേഖല മോശം ആവുകയുംകൂടി ചെയ്തപ്പോഴേക്കും മക്കൾക്ക് ജീവിക്കാമ്മേലാത്ത അവസ്ഥ വന്നപ്പം വിദ്യാഭ്യാസം കൊടുത്ത് മക്കളെ വിദേശത്തേക്ക് അയക്കുന്ന ഒരു പതിവ് ഈ സമുദായത്തിൻ്റെ ഇടയിൽ കടന്നുവന്നു അതുകൊണ്ടുതന്നെ സമുദായങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം കുറയുകയും അവരുടെ നിലനിൽപ്പു തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കാരണം പ്രായമുള്ള കാരണവന്മാരെ നോക്കാൻ മക്കളില്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ അത് മുന്നോട്ടെത്തി കാരണം ഇവിടെ കടവും ബേങ്കിലൊക്കെ വലിയ കടബാധ്യതയിലേക്കൊക്കെ എത്തിയപ്പോഴേക്കും സ്ഥലം കൃഷിസ്ഥലങ്ങൾ വിറ്റ് കടം വീട്ടുകയും അപ്പോൾ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാതാവുകയും കൃഷി നശിച്ചുപോവുകയും അത് ചെയ്യാൻ മക്കളില്ലാതെ ആയപ്പോഴത്തേക്കും ഒരു തകർച്ചയുടെ വക്കിലാണ് എത്തിയിരിക്കുന്നത് പിന്നെ ഹൈറേഞ്ച് പോലെയുള്ള മേഖലകളിൽ ഇടുക്കിപോലെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ഏലം കൃഷിയാണ് പിന്നെ വ്യാപകമായിട്ട് വന്നത് ഏലം കൃഷി ഇപ്പം നല്ല ലാഭകരമായി പോകുന്നൊരു കൃഷിയാണ് പക്ഷെ കാലാവസ്ഥയിലുള്ള വലിയ വ്യത്യാസങ്ങൾ അതായത് വേനൽക്കാലത്ത് കഠിനമായ വെയിലും മഴക്കാലത്ത് കഠിനമായ മഴയും രണ്ടും ഏലത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് മഴക്കാലത്ത് ചീച്ചിൽ എന്നു പറയുന്ന രോഗം ഉണ്ടായി ഏലം ചീഞ്ഞു പോകാറുണ്ട് ഉണക്കത്തിനെ പ്രതിരോധിക്കാൻ കഴിവില്ലാത്തൊരു ചെടിയാണ് ഏലം പക്ഷേ ഇരുപത്തഞ്ച് ഡിഗ്രിക്ക് മുകളിലോട്ട് വരുമ്പം ഏലത്തിന് താങ്ങാൻ കഴിയാത്തതാണ് അത് മുപ്പത് മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂടിലേക്ക് ഇടുക്കിയിലൊക്കെ വരികയും അങ്ങനെ ഏലത്തിൻ്റെ വിളവിനെ ബാധിക്കുകയും അതിൻ്റെ നാശം നേരിടുകയും ചെയ്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ വലിയ കുറവ് ഈ മേഖലയ്ക്ക് വളരെ ദോഷകരമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അതുപോലെതന്നെ വോൾട്ടേജൊക്കെ ഇല്ലാതെ വെള്ളം അടിക്കാൻ വെള്ളം ഉള്ളർക്കുതന്നെ കറണ്ടിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട് കർഷകർക്ക് ജലം നനയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് കാർഷിക മേഖല മുഴുവൻ മോശം അല്ലെങ്കിലും ഒരു ആശാവഹമായ അവസ്ഥയിലല്ല കാർഷിക മേഖല മുന്നോട്ട് പോയ്ക്കൊണ്ടിരിക്കുന്നത് കർഷകർ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ആശങ്കയിലാണ് ഭാവിയെക്കുറിച്ച് നല്ല ഒരു ശുഭപ്രതീക്ഷയില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് എല്ലാ കർഷകരും പോയ്ക്കൊണ്ടിരിക്കുന്നത്